ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ വിനോദങ്ങളിൽ ഒന്ന് ഹോക്കി ആണ് ഹോക്കി കേരളം ഭാരതം എക്കാലവും മുൻപന്തിയിലായിരുന്നു കൂടാതെ കേരളത്തിന്റേതായ പി ടി ഉഷ രാജ്യാന്തര ടീമിൽ നിന്ന് തിളങ്ങിയ താരമാണ് കൂടാതെ ഷൈനി തോമസ് ഷൈനി വിൽസൺ പിന്നെ വോളിബോൾ താരങ്ങളായ ജിമ്മി ജോർജ് ഇങ്ങനെയുള്ള എല്ലാ താരങ്ങളും പ്രശസ്തരുമാണ് കൂടാതെ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ജനപ്രിയമായത് എനിക്ക് തോന്നുന്നത് ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് ഓരോ താരങ്ങളെയും ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ ടീമുകളിൽ താരങ്ങളിൽ ഒരാളാണ്

ഏഴ് സംസ്ഥാനങ്ങിൽ സഞ്ജു സഞ്ജു സാംസൺ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഉണ്ട് ട്വന്റി ട്വന്റി എല്ലാം മത്സരങ്ങളിൽ ടീമിൽ അംഗമാണ് കൂടാതെ മറ്റ് കബഡി നെഹ്റു വള്ളംകളി ചുണ്ടൻവള്ളംകളി ആൻഡ് കേരത്തിൻ്റെ മധ്യകേരളത്തിൻ്റെ പുറത്തേക്ക് അന്താരാഷ്ട്ര ലെവലിലേക്ക് മാറി പ്രശസ്തമായ ഇപ്പം കളിയാണ് അതൊന്നു നന്നായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് എൻ്റെ കുട്ടനാട്ടിലെ സംബന്ധിച്ചിടത്തോളം ചെറുവള്ളങ്ങളും അതും ഭാഗികരമായി പ്രവർത്തിക്കുന്നുണ്ട് സീനിയർ ക്ലബ്ബിലേക്ക് ചുണ്ടൻവള്ളങ്ങളും കൂടുതലായാലും ബോണസും എല്ലാം കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ വള്ളങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കായിക പ്രേമികൾ കാണാനായിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ പന്ത്രണ്ടാം തീയതി എല്ലാ ഓഗസ്റ്റ് മാസത്തിലെയും സെക്കൻഡ് സാറ്റർഡേ ആണ് ഇത് മത്സരം നടക്കുന്നത് കൂടുതൽ താരങ്ങളും കൂടുതൽ ടീമുകളും ഇതിപ്പം കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സംബന്ധിക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാരും കാണികളും വിദേശികളും സ്വദേശികളുമായി കൂടുതൽ ടൂറിസ്റ്റുകൾ ഈ കളികളെല്ലാം കാണാൻ വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും പ്രശസ്തമായ വള്ളംകളി കേളത്തിനും കേരളത്തിനു പുറത്തും പ്രശസ്തമാണ്